കൊച്ചി രാജാവ് സാമൂതിരി രാജാവ് വലിയ കോയിത്തമ്പുരാൻ ചോള രാജാക്കന്മാര് എന്നിങ്ങനെയുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു അവരുടെ ഭരണകാലം വളരേ നല്ല ഭരണകാലങ്ങളായിരുന്നു പക്ഷേ മനുഷ്യർക്ക് എന്നും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ട് രാജ്യ ഭരണം ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒര് ചെറിയ തെറ്റ് ചെയ്താൽ പോലും അവരെ ശിക്ഷിക്കുകയും അവർക്ക് കർശനമായ ശിക്ഷ നൽകുകയും തുറങ്കലട തുറങ്കലിലടയ്ക്കുകയും ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അതെല്ലാം മനുഷ്യർക്ക് വളരെ വിഷമകരമായിരുന്നു ഇന്നത്തെ പോലൊന്നും ആയിരുന്നില്ല ഒര് രാജാവ് വരുന്നു എന്ന് കേട്ടാൽ അപ്പോൾ തന്നെ നമ്മൾ വഴി മാറി നിൽക്കുകയും ചെയ്യണം ആള്കൾക്കാർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അവരുടെ കാര്യം അവരോട് സംസാരിക്കാനോ അവരോട് അടുത്ത് ഒര് കാര്യം പറയാനോ ഒന്നും നമുക്കുള്ള അധികാരം ഇല്ലായിരുന്നു എന്നും അനുവാദമില്ലായിരുന്നു നമുക്ക് എന്നും മറഞ്ഞ് നിന്ന് സംസാരിക്കാനെ പറ്റുവായിരുന്നുള്ളു ആ രാജാക്കന്മാരുടെ ഭരണകാലം ആരും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല കൂടുതലും രാജാക്കന്മാര് യുദ്ധങ്ങള് ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ് രാജാക്കന്മാരുടെ വിനോദങ്ങളില് ചൂത് കളി ചതുരംഗം ചൂത് കളിയൊക്കെ അവർ കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്നു

രാജാക്കന്മാർ അവരുടെ ഭരണം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് തലമുറകളിൽ കൈമാറിക്കൊണ്ടിരുന്നു രാജ ഭരണം കൂട്തലും ആള്കൾക്ക് വിഷമഘട്ടത്തിൽ കൂടിയാണ് കടന്ന് പോയിക്കൊണ്ടിരുന്നത് ഇന്നത്തെപ്പോലെ മന്ത്രിമാരോ മറ്റ് അനിയായികളോ ഒന്നും ആയിരുന്നില്ല ഭരണം നടത്തിയിരുന്നത് ഇവരുടെ ഇന്നത്തെപ്പോലത്തെ ഭരണമായിരുന്നില്ല അന്ന് അവർ കൂടുതലും കർശനമായ ഭരണങ്ങളിലൂടെ നിർബന്ധമായ ഭരണങ്ങളിലൂടെ ആർക്കും സ്വന്തമായി കൃഷി ചെയ്യുന്നതിനോ കൃഷി ചെയ്ത് കഴിഞ്ഞാരുന്നെങ്കിൽ അവര് അവര് അതിൻ്റെ ഒരു ഓഹരിയെല്ലാം വന്ന് രാജാക്കന്മാര് വന്ന് വാങ്ങിക്കൊണ്ട് പോകുകയും നിർബന്ധിച്ച് കൃഷി ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുവായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിൽ കയറാനോ പള്ളികളിൽ ക്ഷേത്രത്തിൽ കയറുവാനുമുള്ള അധികാരവൊന്നും ഉണ്ടായിരുന്നില്ല അവരും മാറിയും നിന്നുമൊക്കെയാണ് വരുന്നവരെ രാജാവ് വരുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വഴി മാറി കൊടുക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് ഒരു ഇതായിരുന്നു ഇന്ന് അങ്ങനെയൊന്നുമില്ല അതോടെ ഏറ്റവും കൂടുതൽ ആളുകൾ രാജ ഭരണത്തെ വെറുത്തിരുന്നു കാരണം അവരുടെ രീതികളെല്ലാം അങ്ങനെയായിരുന്നു മനുഷ്യർക്ക് വെറുപ്പുണ്ടാകുന്ന രീതിയിലായിരുന്നു പുരാതന കാലഘട്ടത്തിലെല്ലാ രാജാക്കന്മാര് വളരെ നീചന്മാരായിരുന്നെങ്കിലും മധ്യ കാലഘട്ടത്തിലെ രാജാക്കന്മാർ കുറേയും കൂടി മര്യാദയായിട്ട് മനുഷ്യരോട് പെരുമാറാനും ഒക്കെ തുടങ്ങി അങ്ങനെ രാജാക്കന്മാരുടെ ഭരണം നമ്മുടെ നാട്ടിൽ നിന്നും മൊത്തമായി മാറിപ്പോവുക മാറുകയും മനുഷ്യരാൽ തിരഞ്ഞെടുപ്പ തിരഞ്ഞെടുക്കപ്പെടുന്ന ജന പ്രതിനിധികളാണ് പിന്നീടുള്ള ഭരണം നടത്താൻ തുടങ്ങിയത് അത്കൊണ്ട്തന്നെയാണ് രാജ ഭരണം കൂടുതലും വെറുത്തത് ആൾക്കാർ ആളുകൾ ഏറ്റവും കൂടുതലും ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നത് സ്ത്രീകൾക്കും ഒത്തിരി അപമാനിതമായ അപമാനിതയായി ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് രാജ ഭരണ കാലത്ത് അവരെ പീഡിപ്പിക്കുകയും പാവപ്പെട്ട സ്ത്രീകളെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവര് അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴ് രാജാക്കന്മാരോട് കൂട്തല് അവരുടെ രാജ ഭരണം എന്ന് പറയുമ്പോൾ ഇപ്പം എന്നും പ്രൗഡിയോട് കൂടിയുള്ള രാജ ഭരണമായിരുന്നു രാജ ഭരണം ആർക്കും ഇഷ്ടപ്പെടാൻ ഇഴ് താൽപര്യവുമില്ലായിരുന്നു അങ്ങനെ രാജാക്കന്മാരുടെ ഭരണം നിലനിന്ന് പോയത് കൊണ്ട് നിന്ന് പോയത് കൊണ്ട് മനുഷ്യർക്ക് കൂടുതലും സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങള് സ്കൂളിലൊക്കെ ചെറുപ്പകാലങ്ങൾല് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് രാജാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ പിന്നെ ഒത്തിരി ഒത്തിരി രാജാക്കന്മാര് നല്ല മനുഷ്യരുവുണ്ട് നല്ലതായിട്ട് പെരുമാറുന്ന ആളുകളുവുണ്ട് അങ്ങനെയുള്ള രാജാക്കന്മാരേം ആള്കൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് പിന്തുടർച്ച ഭരണകാലമായിരുന്നു രാജ ഭരണമെന്ന് പറയുന്നത് ഒരാളുടെ ഭരണ ശേഷം അവർക്ക് തലമുറയില് അടുത്തയാൾക്ക് ഭരിക്കാനുള്ള ഭരണം ആയിരുന്നു അന്നൊക്കെ പ്രശസ്തരായ ഏറ്റവും പ്രശസ്തരായ രാജാക്കന്മാര് സാമൂതിരി രാജാവൊക്കെ നല്ല ഭരണമായിരുന്നു എങ്കിലും നമ്മൾക്കതിനെക്കുറിച്ച് ഒന്നും അറിവില്ല പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവേ ഉള്ളു ഏകദേശം ഒരു എഴുപത് വർഷത്തിന് മുമ്പൊക്കെയാണ് രാജ വർഷം എഴുപത് വർഷമൊക്കെ ആയിരിക്കും അതിന് അത് എനിക്ക് കൃത്യമായ കണക്കൊന്നും എനിക്കറിയില്ല എന്നാലും അന്നത്തെ കാലഘട്ടത്തെപ്പറ്റിയൊന്നും നമുക്ക് നല്ല അറിവില്ല ഇങ്ങനെ വായിച്ച് കേട്ടതും പഠിച്ചതും ഒക്കെ ആയിട്ടുള്ള അറിവുകള് മാത്രമേ ഉള്ളു രാജാക്കന്മാരുടേയും യുദ്ധ കാലവും യുദ്ധം ചെയ്ത് ആളുകളെ രാജ്യങ്ങൾ കീഴടക്കുന്നതും ഒക്കെയാണ് നമുക്ക് കൂടുതലും അറിവുള്ളത് രാജാക്കന്മാര് എന്നും നീണാൽ വാഴട്ടേന്നാണ് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളുവൊക്കെ ഉണ്ടായിരുന്നത്

നീതിപൂർവ്വം പെരുമാറുന്ന രാജാക്കന്മാരും അന്നുണ്ടായിരുന്നു ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലായിരുന്നു രാജാക്കന്മാരുടെ രീതികളെല്ലാം